വർഷങ്ങളായി ഫോട്ടോഗ്രാഫി എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പണ്ടുകാലത്തൊക്കെ നല്ല ക്യാമറകളായിരുന്നു ക്യാമറകളിലാണ് ഫോട്ടോ എടുത്ത് പിന്നീട് ക്യാമറകൾ ക്യാമറകൾ പല മോഡലുകളായി അതായത് അത് ഡിജിറ്റലായി ഡിജിറ്റൽ ക്യാമറകളായി നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ക്യാമറകളും എടുത്തിട്ടാണ് നടക്കാറ് പിന്നീട് അത് മെല്ലെ മെല്ലെ മെല്ലെ ഫോണുകൾ വന്നു ഫോണുകൾ വന്നപ്പോൾ ഫോണുകളിലായി ഫോട്ടോ എടുക്കൽ ഫോണുകളിൽ അന്ന് ഫോട്ടോ എടുക്കുമെങ്കിലും ക്യാമറകളിൽ എടുക്കുന്ന ആ ഒരു ക്ലാരിറ്റി ഫോണിൽ കിട്ടാറുണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ ഇപ്പോൾ നമ്മൾ ഫോണുകൾ ഉണ്ടെങ്കിലും ഫോണുകളിൽ അത്യാവശ്യം ഫോട്ടോ എടുക്കുമെങ്കിലും ക്യാമറകളും കൂടെ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു കാരണം ക്യാമറകൾക്കാണ് അന്ന് അന്നുള്ള ക്യാമറകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഉള്ളത് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം നോക്കുവാണെങ്കിൽ ക്യാമറകൾക്ക് കൊടുക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ മൊബൈൽ ക്യാമറകളിലും എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള മൊബൈലുകൾ സജ്ജീകരിക്കുന്നത് അത്രയും ക്ലാരിറ്റി ഉള്ള മൊബൈൽ ഫോൺ നമ്മുടെ നാട്ടിൽ ഇപ്പം അവൈലബിൾ ആണ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഫോട്ടോ എടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് നമുക്ക് പ്രത്യേകിച്ചൊരു ക്യാമറയോ കാര്യങ്ങളോ ഒന്ന് എവിടെയും ടൂർ പോകുമ്പോൾ ഒന്നും കൊണ്ട് പോവേണ്ട ആവശ്യമില്ല ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറകളും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോവേണ്ട ആവശ്യമില്ല കയ്യിൽ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ ധാരാളമായിരിക്കും അത്രയും വിലയുള്ള ഫോണുകൾ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക അത്രയും ക്ലാരിറ്റി ഉള്ള ക്യാമറകൾ ഉള്ള ഫോണുകൾ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക അപ്പം നമ്മൾ പ്രത്യേകിച്ചൊരു ക്യാമറ കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ വർഷങ്ങളായിട്ട് ഫോട്ടോഗ്രാഫിൻ്റെ രൂപങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ക്യാമറകൾ ഉപയോഗിച്ച് തുടങ്ങി ഇപ്പം അത് ചെറിയ മൊബൈൽ ഫോണുകളായിട്ട് ചെറുതെന്ന് അല്ല മൊബൈൽ ഫോണുകളിലെ ക്യാമറകൾ ആയി മാറിയിരിക്കുന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ ഈ കാലങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം